ഇവിടെ ഉള്ള വ്യവസായം ഇപ്പോൾ കോഫീ പൗഡർ ഉണ്ട് പിന്നെ മാങ്ങ സീസൺ ഒക്കെ ആയതുകൊണ്ട് മാങ്ങ അച്ചാറ് മാങ്ങകൊണ്ടുള്ള പല വിഭവങ്ങളും തൊറ മാങ്ങയായിട്ടും മാങ്ങ ഒണക്കിയതായിട്ടും മാങ്ങ അച്ചാറി ൻ്റെ തന്നെ പല രീതിയിലുള്ള അച്ചാറൊക്കെ ആയിട്ട് അങ്ങനെ നടക്കും നടത്തുന്നുണ്ട് പിന്നെ പപ്പടത്തിൻ്റെ വ്യവസായം നടക്കുന്നുണ്ട് പിന്നെയുള്ള വ്യവസായമെന്ന് പറയുന്നത് ചായപ്പൊടി തേയിലയുള്ളവർക്ക് ചായപൊടിൻ്റെ വ്യവസായം നടക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ് ഉള്ളത് കോഫി ചായ അച്ചാറുകള് പപ്പടം വടുക് അങ്ങനെയുള്ള വ്യവസായങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പിന്നെ കുടുംബശ്രീ മുഖേന സോപ്പ് ഉണ്ടാക്കല് സോപ്പ്പൊടി ഉണ്ടാക്കല് പാത്രം കഴുകുന്ന ഡിഷ്വാഷിൻ്റെ ലിക്വിഡ് ഉണ്ടാക്കല് അതൊക്കെ ചെയ്യുന്നുണ്ട് അത് നല്ലൊരു വ്യവസായ മാർഗമാണ് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യവസായമാണ് സോപ്പ്പൊടീന്റേം സോപ്പിന്റേയും ലിക്വിഡിൻന്റേയും ഒക്കെ